ഇപ്പോൾ കേരളത്തിൽ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം വ്യത്യാസം വന്നിട്ടുണ്ട് പണ്ടുള്ള പോലെയൊന്നുമല്ല ഇപ്പോൾ സാങ്കേതിക വിദ്യ നല്ല രീതിയിലുള്ള മാറ്റവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം സാങ്കേതിക വിദ്യയിൽ ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം എല്ലാവരുടെ കൈയിലും മൊബൈൽ ഫോണാണ് ഇപ്പം ചെറിയ ഒരു കുട്ടിയുടെ അടുത്ത് പോലും മൊബൈൽ ഫോണാണ് ആ മൊബൈൽ ഫോൺ വരാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ കൊറോണ സമയത്ത് ഓൺലൈൻ ക്ലാസുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം പിള്ളേരുടെ കൈയിൽ എല്ലാം മൊബൈൽ കാര്യങ്ങളൊക്കെ വന്നു ഇപ്പം അവരങ്ങനെ മൊബൈലിൽ നിന്നും വിട്ടുമാറാത്ത ഒരു അവസ്ഥയാണ് അപ്പം സാങ്കേതിക വിദ്യ വന്നത് കൊണ്ട് കുറേ ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ഉപയോഗം ഉണ്ടായിട്ടുണ്ട് കുറേ ആൾക്കാർക്ക് മോശമായിട്ടുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളുമുണ്ട് കാരണം മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം മൂലം കുറേ ആൾക്കാർ പഠനത്തിൽ പോലും ശ്രദ്ധിക്കാത്ത ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ പല രീതിയിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ സ്കൂളുകളിൽ ആണെങ്കിലും സാങ്കേതിക വിദ്യ വന്നത് കൊണ്ട് പ്രൊജക്ടർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പ്രൊജക്റ്റ് ആയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വീഡിയോസ് കാണിച്ച് കൊടുക്കുക അതിൽ നിന്ന് പഠനം മുന്നോട്ട് കൊണ്ടു പോകുക അങ്ങനത്തെ പല രീതിയിലുള്ള കാര്യങ്ങൾ സ്കൂളിൽ വന്നിട്ടുണ്ട് അപ്പം നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കാഴ്ച വെക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ ഒക്കെ സാധിക്കുന്നുണ്ട്